ഞാൻ എൻ്റെ വിദ്യാഭ്യാസകാലത്ത് ഞാൻ യോഗ ക്ലാസുകൾ ചേർന്നിട്ടുണ്ട് എൻ്റെ വിദ്യാലയത്തിൽ യോഗ ക്ലാസുകൾ പരിശീലനമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലാസ്സുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ യോഗ ചെയ്യുന്നതിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് പഠനത്തിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളും പിടിച്ച് മുറുക്കുകളും ഒന്ന് കുറക്കാനാണ് പിരിമുറുക്കമൊക്കെ കുറയ്ക്കാനാണ് യോഗ കൊണ്ട് ഉദ്ദേശം അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽതന്നെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തമായ വീട്ടിൽ പരിശീലിക്കുന്നതും വളരെ അധികം നല്ലൊരു കാര്യം തന്നെയാണ് അതായത് എപ്പഴും നമുക്ക് സമയം ഉണ്ടാവണം എന്നില്ലല്ലോ കാരണം പുറത്ത് പോയി ക്ലാസുകൾ പോയി പഠിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും പറ്റുന്ന കാര്യമായിരിക്കില്ല അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാം വീട്ടിൽ ചെയ്യുന്നത് വീട്ടിൽ ചെയ്യുന്നതിൻ്റെ പുറത്ത് പോയി ക്ലാസ്സുകളിൽ പോയി കൂടി ചെയ്യുന്നതിൻ്റെയും വ്യത്യാസമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൂടി തോന്നിയിട്ടുള്ളത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ യോഗ എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും പിന്നെ വേറെ ഇൻറ്റർനെറ്റിലൂടെയും കണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് വളരെ അധികം വീട്ടിൽ ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമുക്ക് കുറച്ച് കൂടി നിലവാരം കൂടിയ യോഗ ചെയ്യണമെങ്കിൽ കുറച്ച്കൂടി ബുദ്ധിമുട്ടുള്ള കഠിനമായ ആസനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുണ്ടങ്കിൽ അങ്ങനെത്തെ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെത്തെ ഒരവസരം വരുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോയി ചെയ്യാം അപ്പം അവിടെ കുറച്ച്കൂടി പരിചയ സമ്പന്നനായുള്ള അദ്ധ്യാപകരുണ്ടാവും യോഗ പഠിപ്പിക്കാനായിട്ട് അപ്പം അവരുടെ ഒരു മാർഗ്ഗനിർദേശത്തിൽ അങ്ങനെത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റും അപ്പം നിലവാരം നല്ല രീതിയിൽ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ പോയി ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ നമുക്ക് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഭാഗമാക്കാൻ പറ്റിയ രീതിയിൽ പോകുകയാണെങ്കിൽ യോഗ നമുക്ക് വീട്ടിൽ ചെയ്യാനും പറ്റും ക്ലാസ്സുകളിൽ പോകുമ്പോൾ കുറച്ച് കൂടി നിലവാരം കൂട്ടാൻ പറ്റും അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതശൈലിയുടെ ഭാഗത്തിൻ്റെ ഒക്കെ ആക്കാൻ പറ്റുന്നു നോക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്തായാലും വ്യത്യാസം ഉണ്ട് കാരണം നമുക്ക് അവിടെ പോയി ചെയ്യുന്നതിൽ അവരുടെ ഒരു മാർഗ്ഗനിർദ്ദേശം അതായത് കുറച്ച് കൂടി പരിചയസമ്പന്നരായവരുടെ മാർഗനിർദേശത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച്കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കുറച്ച് കൂടി കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും എങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വ്യത്യാസം ഉണ്ട് എന്തായാലും